എൻ്റെ മനസ്സിനിണങ്ങിയ വിനോദ വൃത്തിയെന്നു പറയുമ്പോൾ ഒരു ഹോബിയെന്നു പറയുന്നത് പെയിന്റിങ്ങാണ് ഞാൻ നന്നായിട്ട് വരയ്ക്കും ഓയിൽ പെയിന്റിങ്ങാണ് ഏറ്റവും കൂടുതല് ചെയ്യുന്നത് എൻ്റമ്മേനെയും വീട്ടുകാരെയും അച്ഛനെയുമൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട് എൻ്റെ വീട്ടുകാരതിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുവെന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ബർത്ത്ഡേയ്ക്ക് അവരൊരു പ്രാവശ്യം എനിക്ക് ഒരു സെറ്റ് ഫുൾ ഓയിൽ പെയിന്റിംഗ് മൊത്തം സെറ്റ് പെയിന്റിംഗ് വാങ്ങിത്തന്നു പ്ലസ് ഒരു ക്യാൻവാസും കൂടി വാങ്ങിത്തന്നു അപ്പോള് ഇങ്ങനെയാണെൻ്റെ എനിക്കൊരു ഇഷ്ടപ്പെട്ടൊരു ഹോബിനെ വീട്ടുകാര് സപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ചോദിക്കാണ്ടു തന്നെ ആവിശ്യമെന്താണെന്ന് മനസ്സിലാക്കി വാങ്ങിത്തന്ന് അതിനെ സപ്പോർട്ടെയ്യുന്നതാണ് എൻ്റെ വീട്ടുകാര് ചെയ്യുന്നത്